വയനാട് ജില്ലയിൽ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ ഒത്തിരിയേറെയുണ്ട് ഇപ്പം നമുക്ക് ചുരം കയറി വരികയാണെങ്കിൽ ലക്കിടി വ്യൂ പോയിൻ്റ് തൊട്ട് ഇപ്പം മാനന്തവാടി ആണെങ്കിൽ കുറുവ ദ്വീപ് വരെ ബത്തേരിയുണ്ട് ജൈൻ ടെമ്പിൾ മുത്തങ്ങ കുറേയുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ മീനങ്ങാടി ഭാഗത്ത് വരികയാണേൽ കാരാപ്പുഴ ഡാമുണ്ട് തൊള്ളായിരം കണ്ടി ഉണ്ട് പിന്നെ വെള്ളച്ചാട്ടമുണ്ട് ഓരോ സ്ഥലത്ത് ഓരോന്ന് ട്രൈബൽ പാർക്കുകളുണ്ട് എന്നൂരുണ്ട് പൂക്കോടുണ്ട് പിന്നെ അമ്പലവയൽ പോവുകയാണെങ്കിൽ പിന്നെ ഗവേഷണകേന്ദ്രം ഉണ്ട് നമ്മുടെ പൂക്കളുടെ തന്നെ ജനുവരി മാസങ്ങളിലൊക്കെ തുടങ്ങുന്ന പിന്നെ ഫ്ലവർ ഷോകളുണ്ട് ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ പിന്നെ ഫീസ് കൊടുക്കണം ഒരു അമ്പത് രൂപേൻ്റെ മേലെ എങ്ങനെ ആയാലും ഫീസാവും ഒരു അമ്പത് നൂറ് രൂപയാണ് നമുക്ക് പ്രവേശന ഫീസ് വരുന്നത് വളരെ നല്ല ഇത് നല്ല അറ്റ്മോസ്ഫിയറിൽ നല്ല നല്ല ഇത് പൂന്തോട്ടം കാണാം മക്കൾക്ക് കളിക്കാം അങ്ങനെ കുറേ നല്ല നല്ല വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുണ്ട് വയനാട്ടിൽ